ഹലോ ഞാനവിടെ കഴിഞ്ഞ ദിവസം ആ പിന്നെ ഒരു ഒന്ന് പിന്നെ ട്രിപ്പിനൊരു വണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു മുൻപ് ആ അപ്പം ആ ക്യാമ്പ് ആ ക്യാബായിരുന്നു ബുക്ക് ചെയ്തത് പക്ഷേ എൻ്റെ വാളറ്റ് ആ അതിൽ മിസ്സായി വാളറ്റും അതിനകത്തു കുറച്ചെൻ്റെ പേഴ്സണൽ ഡീറ്റെയ്ൽസും കാര്യങ്ങളും പിന്നെ എൻ്റെ ആധാർ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനെ കുറച്ചു സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് നിങ്ങൾക്ക് കിട്ടിയോ എന്താണ് അവസ്ഥാന്നൊക്കെ അറിയാൻ വേണ്ടീട്ടായിരുന്നു കാരണം നിങ്ങളുടെ വണ്ടീവെച്ചാണ് ഞാൻ മറന്നുപോയി ഇറങ്ങിയത് പിന്നെയിവിടെത്തീട്ടാണ് അത് ഞാൻ ബാക്കിയെല്ലായിടത്തൂ അവിടന്നാണ് ഞാൻ പിന്നെ വെള്ളം വാങ്ങാനോ മറ്റോ ആണ് അത് ഞാൻ ആ വാളറ്റ് എടുത്തത് അപ്പം അത് നിങ്ങൾക്ക് കിട്ടിയോ എന്താണ് അവസ്ഥാന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടീട്ടാണ് ഒന്ന് നിങ്ങൾ അന്വേഷിച്ചുനോക്കുവോ എന്നൊക്കെ അറിയാൻ വേണ്ടീട്ടായിരുന്നു വിളിച്ചത് ആ ഓ കിട്ടുവാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം എന്നെ വിളിച്ചൊന്നു അറിയിക്കണട്ടോ കാരണം കാരണം അത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റായിട്ടുള്ള രേഖകളാണ് അതിനകത്തു എ റ്റി എം കാർഡും കാര്യങ്ങളൊക്കെയുണ്ട് പാൻ കാർഡ് എ റ്റി എം കാർഡൊക്കെയുണ്ട് അപ്പം നമുക്കത് കുറെ ദിവസം അങ്ങനെയിതാക്കാൻ പറ്റില്ല കാരണം ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുവാ കാരണം രേഖകളുള്ളതല്ലേ